എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ് എൻ്റെ കുടുംബമൊരു അണുകുടുംബമാണ് ഞാനും അച്ഛനും അമ്മയും ഉൾപ്പെടുന്നു അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ് ഒരു ചെറിയ തുണി ഷോപ്പുണ്ട് അവിടെ അച്ഛൻ മൂന്നാലു സ്റ്റാഫിനെയും വെച്ച് കട നടത്തുകയാണ് അമ്മ ഒരു എൽ ഐ സി എജൻ്റാണ് അമ്മ ബിസിനസ്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി ടു വീലർ ഉപയോഗിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയർ ആണ് ഞാൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെറിയ ചെറിയ ജോലികളും അന്വേഷിച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അവൻ്റെ പേര് ശോഭിത്ത് എന്നാണ് അവൻ ഒരു എം ബി എക്കാരനാണ് അവൻ ഇപ്പോൾ വർക്ക് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഇൻഫോ പാർക്കിലാണ് പിന്നെ എൻ്റെ വേറെ സുഹൃത്തെന്നു പറയുമ്പോൾ എൻ്റെ കൊലീഗായ ശ്രീജിഷ്ണുവിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു അവൻ സിലിക്കൺ മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനി ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും എൻ്റെ കണ്ണൂർ ജില്ലയിലെ വീട്ടിനടുത്തുള്ള പുതപ്പാറയിലും ചിറക്കല്ലിലുമാണ് താമസം ചെയ്യുന്നത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനിത് നിർത്തുന്നു